അതേ എ ആ എത്രെണ്ണം വേണം ആ നമക്ക് ചായ പഫ്സ്സ് പിന്നെ ഹോർളിക്സ്സും ബൂസ്റ്റക്കൊണ്ട് അതിന് പതിനഞ്ച് രൂപ വരും ആ ആ അതിനപ്പം ആ അതിന് വില കൂടും ഒരു പന്ത്രണ്ട് രൂപ വരും ഒര് ചായക്ക് അത് ഒരിക്കടി ഒരിക്കടിയാണിള്ളത് മറ്റേ സമോസേം കട്ട്ളറ്റ് പഫ്സ്സ് പഫ്സ്സ് വെജ്ജും ചിക്കനക്കെ ഉണ്ട് വെജ്ജാണെങ്കിൽ പത്തും ചിക്കനാണെങ്കിൽ പന്ത്രണ്ടും എത്രെണ്ണം വേണം ആ ആ ആ കട്ലറ്റിലെ ഇത് വേണ്ട സമോസ വേണ്ട സമോസ ആ ആ ആ ആ ആ ഇത് എങ്ങനെ വീട്ടിക്കൊണ്ട് തരണം ആ ആ അപേ ഡെലിവറി ചാർജ് ഉണ്ടാവും കൽത്തപ്പം ഇവിടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണംന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത കടേന്ന് സെറ്റാക്കിത്തരും എങ്ങനെ കേട്ടില്ല അത് ട്വൻറ്റി ഇരുപത് രൂപ ഒരു ഹാഫ്ഫ് പീസിന് എ ആ ആ ആ ആ ഇടപാട് അപ്പോഴ്ത്തെന് ഡെലിവറി ചാർജെജ് പത്തും പിന്നെ പത്ത് കടിയല്ലേ മൊത്തത്തിലൊരു ഇരുപത് രൂപ ആ ഓക്കെ ഓക്കെ